ഹലോ ഹലോ ചേച്ചി ആ പിന്നെ അതെ അതെ അതെ എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ ആ ഹാ എന്നാ വിളിച്ചത് ചേച്ചി പറഞ്ഞോളൂ ആ ഹാ ഹാ ആ പിന്നെ ആ പിന്നെ നമ്മളില്ലേ എന്നാണോ ചമ്പക്കുളം മങ്കമ്പ് റൂട്ടൊക്കെ അറിയാവോ ഏച്ചിക്ക് ആ അവിടെ നമ്മൾ മങ്കമ്പ്ന്ന് എങ്ങനാണോ ഈ അല്ലെങ്കിൽ ചമ്പക്കൊളത്തൂന്ന് വരുമ്പോഴ് അല്ലെങ്കിൽ മങ്കമ്പീന്ന് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഷാപ്പുണ്ട് ഏ നല്ല ആ നല്ല നല്ല ഫുഡൊക്കെയാണ് പിന്നെ നല്ല കരിമീൻ പൊള്ളിച്ചത് ഞണ്ട് കറി താറാവ് നല്ല ഇതുണ്ട് അതെന്നാന്നറിയോ ഞാൻ പോയിട്ടൊന്നുമില്ല എനിക്ക് ഭയങ്കര ആഗ്രഹവാണ് ഇവിടെ പോയി കഴിക്കണമെന്ന് എൻ്റെ ഒരു കൂട്ടുകാരി ഇതുപോല അവിടങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് അവിടെ കയറി അന്നേരത്തേക്കിനും അവൾ പറഞ്ഞു നീ ഒന്ന് പോയി കഴിക്കണം നല്ല ഫുഡാ എന്നൊക്കെ പറഞ്ഞു പിന്നെ ചേച്ചി ആണാ ആ ഹാ ഹാ ഹ നല്ല ആ ഹാ അവിടെ അവിടത്തെ അല്ലെ ആ ഹാ ഹ ഷാപ്പിലെ ഫുഡ് കഴിക്കണം ആ അത് ആ പിന്നെ അതിലും നല്ലതാണ് നമ്മൾ എടത്തുവായിലോട്ട് ഈ ചമ്പക്കുളത്തൂന്ന് പോകുമ്പോൾ തായങ്കരി റൂട്ടിൽ ഒരു ഇതുണ്ട് ഈ ആ അതുതന്നെ ചന്തംകരിപ്പ് എന്നാതാ അത് അമേരിക്കൻ ഷാപ്പോ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് സംഭവം അതും ഇതുപോലെ തന്നെ ഭയങ്കര ഒരു ആ ഭയങ്കര തിരക്കുവാണതു പോലെ ഈ ഞാനീ പറഞ്ഞ ഈ ഇല്ലില്ല ഫാമിലി ഫാമിലിയായിട്ട് തന്നെയാണ് ഇപ്പം ഞാനൊക്കെ എടത്ത്വ പള്ളിയിലൊക്കെ ഇതിലെയൊക്കെ പോകുന്നത് വഴിക്ക് നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ വണ്ടിയിൽ വന്നിട്ട് അവടിങ്ങനെ കയറി ഫാമിലിയായിട്ട് കയറി ഫുഡൊക്കെ കഴിച്ച് ആ പിന്നെ നമ്മൾ കള്ളൊന്നും കുടിക്കുന്നില്ലല്ലോ അതവിടെ നല്ല ചെത്ത് കള്ളാണല്ലോ അതും നമ്മൾ കു നമ്മളവിടത്തെ ആ ഫുഡ് മാത്രമല്ലേ കഴിക്കുന്നുള്ളു ആ നല്ലതാണ് കേട്ടോ അങ്ങനെ ഒത്തിരി പേര് ആ ആ ഇത് നാടൻ ഫുഡ് തന്നെയല്ല ഒരുമാതിരിപ്പെട്ട എല്ലാം ഐറ്റോം കിട്ടും അതായത് താറാവ് ആ പിന്നെ ആ അതൊക്കെ നല്ല റേറ്റ് വരും അതുപോലെ തന്നെ അവരുണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ആ എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ആ ആ നമുക്കൊരു ആഗ്രഹം അല്ലേ അതെ അതെല്ലാം അവരെ കഴിപ്പിച്ചിട്ട് നമുക്കൊന്നു പോയി കഴിക്കണം എങ്ങനെയുണ്ടെന്ന് അറിയണവല്ലോ എല്ലാവരും പറ ആ ആ അറിയാം ആ ശരി ശരി എന്നാൽ